കോഴിക്കോട് ജില്ലയിൽ ജില്ലയിൽ ലഭ്യമായ പ്രാദേശിക ഗതാഗത സംവിധാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ഉണ്ട് ബസ്സുണ്ട് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമാന താവളങ്ങൾ ഉണ്ട് അങ്ങനെ എല്ലാവിധ അതായത് നമുക്ക് എല്ലാവിധ ഗതാഗത സൗകര്യങ്ങൾക്കൊന്നും ഒരു പഞ്ഞമില്ലാത്ത ഒരു നാടാണ് നമ്മുടെ കോഴിക്കോട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതുപോലെ പറയുകയാണെങ്കില് പിന്നെ ഇത് നമുക്ക് എന്തേലും ജോലിക്ക് പോകുന്ന ആൾ ആൾക്കാർക്ക് ഒക്കെ വളരെ ഉപകാരമാണ് ഇപ്പം ട്രെയിനില് പോകുന്നവര് ഉണ്ടാകും അതേപോലെ തന്നെ ബസ്സില് പോകുന്നവര് ഉണ്ടാകും പിന്നെ ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാല് എല്ലാവർക്കും സ്വകാര്യ വാഹങ്ങളാണല്ലോ ഉള്ളത് സ്വന്തായിട്ട് ഒരുപാട് വാഹനങ്ങൾ ഉള്ളവരാണ് കൂടുതലും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ദൂരെ സ്ഥലങ്ങളില് കാര്യങ്ങളില് ഒക്കെ പോകണം എങ്കിൽ നമുക്ക് ടാക്സി സ്റ്റാൻഡ് അങ്ങനെ കാറിൻ്റെ ടാക്സി സ്റ്റാൻഡ് ഉണ്ടാകും അതുപോലെ ഓട്ടോ ഉണ്ടാകും അങ്ങനെ നമുക്ക് എല്ലാം അതായത് ഗതാഗത സംവിധനത്തിന് ഒന്നും നമുക്ക് ഒരു പഞ്ഞവും ഇല്ലാത്തൊരു സ്ഥലമാണ് അതാണ് നമ്മുടെ കോഴിക്കോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ജോലി സൗകര്യത്തിനും എല്ലാത്തിനും അതായത് നമുക്ക് ട്രെയിൻ ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് നമുക്ക് അതായത് നമുക്ക് അത് വെച്ചിട്ടുണ്ടെങ്കില് നമുക്കത് അപമാ അഭിമാനിക്കാം